ഹലോ ഞാന് ഒരു പാൻ കാർഡിന് അപേക്ഷിച്ചായിരുന്നേ ഓൺലൈനായിട്ട് അപ്പോള് അതിൻ്റെയൊരു അ എന്തോ ഡീറ്റെയിൽസിലെന്തോ പ്രശ്നമുണ്ടെന്നു പറഞ്ഞിട്ടു തിരിച്ചയച്ചായിരുന്നേ എന്താണു സംഭവം എനിക്കു മനസ്സിലായിട്ടില്ല കാരണം എന്താണെന്നുവച്ചാല് ഞാനത്രയും സൂക്ഷ്മതയോടെ പരിശോധിച്ചയച്ച എൻ്റെ ആധാറിൻ്റെ ഡീറ്റെയിൽസാണേ പിന്നെ അതിലെന്താണു പ്രശ്നമെന്നുള്ളത് എനിക്കറിയില്ല ഞാനതു സ്വയം റെസ്പോൺസിബിലിറ്റിയില് എൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തില് അയച്ചതാണ് കാരണം എനിക്കറിയാം ഈ പാൻ കാർഡ് ആധാറുമായി കറക്റ്റ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലുള്ള ഭവിഷ്യത്തെനിക്ക് കറക്റ്റായിട്ടറിയാം പക്ഷെ ഇത് ഞാൻ എൻ്റെ സ്വയം ഇതില് അയച്ചതാണ് എന്നിട്ട് എന്താണ് റിജക്ഷൻ വന്നതെന്ന് എനിക്കറിയില്ല എനിക്കിതിൻ്റെ കോൺസിക്വൻസസും ഇതിന്റെ വരുംവരായ്കകളൊക്കെ നന്നായിട്ടറിയാം എന്നിട്ടും ഇത് എനിക്ക് പോയി പുതിയൊരു പാൻ കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ട് എന്തേ റിജെക്ഷൻ വന്നതെന്നെനിക്കറിയില്ല ഈ തെറ്റായ വിവരങ്ങള് ഒരിക്കലും ആവാൻ സാധ്യതയില്ല കാരണം എന്താണെന്നുവച്ചാല് ഞാന് ആസ് ആ അനഡൽട്ട് ഇന്ത്യൻ പൗരൻ എന്ന നിലയില് ഞാൻ നൽകുന്നതാണ് എൻ്റെ ഡീറ്റെയിൽസ് അതിലെങ്ങനെ തെറ്റു വരും ഞാന് എഡ്യൂക്കേറ്റഡാണ് സോ ഇങ്ങനെ പറ്റുമോ എന്നറിയില്ല എനിക്ക് മനസ്സിലായി എനിക്ക് ഇതിൻ്റെ വരുംവരായ്കകളെല്ലാം മനസ്സിലായി എങ്കിലും ഇതെന്താണ് സംഭവമെന്നെനിക്കു മനസ്സിലാവുന്നില്ല അപ്പോള് അതിനു നിങ്ങളൊരു സഹായം ചെയ്യുകയാണെങ്കിൽ ആ ഉപകാരമായിരുന്നു ഏ കാരണം അത് ഓൺലൈനായിട്ട് ഒരു പാൻ കാർഡ് കിട്ടുക എന്നു പറഞ്ഞാല് വളരെ ലാ എന്താണു പറയുക ഈ ടെക്നോളജിയൊക്കെ പുരോഗമിച്ച കാലത്തു വളരെ അതാണ് ഓക്കെ താങ്ക്യൂ